എൻ്റെ കുടുംബത്തോടും എൻ്റെ സുഹൃത്തുക്കളോടുമൊക്കെ കാണുകയും കളിക്കുകയും ചെയ്യാനായിട്ടെനിക്കേറ്റവും ഇഷ്ടമുള്ള ഇഷ്ടമുള്ള സ്പോർട്സ് എന്നു പറയുന്നത് ഫുട്ബോളാണ് അത് ഭയങ്കര ഇഷ്ടമാണ് കാരണം അത് കുഞ്ഞുന്നാൾ മുതലേ അതു ഭയങ്കര ഇഷ്ടമുള്ള നല്ല സ്പോർട്സാണ് അതുപോലെതന്നെ അത് കാണാനും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അത് കളിക്കാനും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കുറേ നാളായിട്ട് കുറേ നാളായി കളിച്ചിട്ടും അതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങളല്ല കുറേ നാളായി കളിച്ചിട്ട് അതുമൂലം കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എൻ്റെ കുടുംബക്കാരൊന്നും അങ്ങനെ ഇതുപോലെ സ്പോർട്സും അങ്ങനെയൊന്നും കാണാറില്ല കളിക്കാറില്ല പക്ഷേ എൻ്റെ സിസ്റ്ററുമായിട്ട് ഞാൻ ഒരു കളി ബാഡ്മിൻ്റനും ഒക്കെ കളിക്കാറുണ്ട് പിന്നെ ഫുട്ബോളാണ് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട കളി ഇപ്പോൾ പക്ഷേ കോളേജിൽ വന്നതിന് ശേഷം ടേബിൾ ടെന്നീസ് ടേബിൾ ടെന്നീസ് ഭയങ്കര ഇഷ്ടമാണ് അതു കളിക്കാറുണ്ട് അത് ഭയങ്കര നല്ലൊരു കളിയാണ് അത് ഒരു ഒരുപാട് നമ്മളെ അത് പെട്ടെന്ന് ആർക്കും കളിക്കാനും പറ്റിയ ആർക്കും പഠിക്കാൻ പറ്റിയൊരു ഗെയിമാണ് ഈ ടേബിൾ ടെന്നീസ് എന്നു പറയുന്നത് അതുപോലെതന്നെ പലതരം കളികൾ സ്പോർട്സുണ്ട് എനിക്കെല്ലാ സ്പോർട്സും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അത് സ്പോർട്സിൻ്റെ സ്പോർട്സ് എന്നു പറയുന്ന നമ്മുടെ ശരീരം വളരാനും നമ്മുടെ ശരീരത്തിന് കൂടുതൽ എനർജി ഒക്കെ തരികയും ചെയ്യും ഈ സ്പോർട്സ് മൂലം ചില സ്പോർട്സൊക്കെ ഭയങ്കര അപകടം നിറഞ്ഞ സ്പോർട്സുകളും ഉണ്ട് അതുപോലെതന്നെ ഫുട്ബോളും അപകടമൊക്കെ ഉണ്ട് എന്നാലും എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇടയ്ക്കൊക്കെ പരിക്കുപറ്റും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഫുട്ബോളൊക്കെ നല്ല സ്പോർട്സാണ് ഫുട്ബോള് ക്രിക്കറ്റ് ചില എൻ്റെ കൂട്ടുകാരുണ്ട് ഫുട്ബോള് കളിക്കുന്നവർ ക്രിക്കറ്റ് കളിക്കുന്നവർ അവർക്കൊക്കെ വളരെ ഇത് കളികളൊക്കെ ഭയങ്കര ഇഷ്ടവും താല്പര്യവും താല്പര്യമുള്ളവർക്ക് ആ മേഖലയിൽ തന്നെ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര ഇഫക്റ്റീവായിട്ടും ഒക്കെ പിന്നെ ഇതൊക്കെ വളരെ ഇഷ്ടപ്പെട്ട് കളിക്കുന്നവരുണ്ട് അതുപോലെതന്നെ ചിലവർ കഷ്ടപ്പെട്ട് കളിക്കുന്നവരുണ്ട് ഇഷ്ടപ്പെട്ട് കളിക്കുമ്പോഴാണവർക്ക് കൂടുതൽ അത് നല്ല പ്രൊഡക്റ്റീവാകാൻ പറ്റുന്നത് നന്നായിട്ട് നന്നായിട്ട് ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനൊക്കെ പറ്റുന്നത് അതുപോലെതന്നെ സ്പോർട്സിലെ ഏറ്റവും നല്ല ഒരു കാര്യം എന്നു പറയുന്നത് അത് നന്നായിട്ട് ചെയ്യുന്നവർക്ക് നല്ല കായികമായപരമായിട്ടും അതുപോലെ തന്നെ അവരുടെ മാനസികമായിട്ടും ഒക്കെ നല്ലൊരു ഹെൽത്തി ആവാനായിട്ട് പറ്റും നല്ലൊരു നല്ല ആരോഗ്യം കിട്ടും സ്പോർട്സ് ഇതുപോലെ ചെയ്യുമ്പോഴും ഒക്കെ സ്പോർട്സിനോടൊപ്പം തന്നെ ഈ ജിമ്മിൽ ജിമ്മിൽ പോകുമ്പോഴും വർക്കൌട്ട് ചെയ്യുമ്പോഴും ഒക്കെ നല്ല ആരോഗ്യമൊക്കെ നമുക്ക് കിട്ടും ഞാനേറ്റവും കൂടുതൽ കളിക്കാറുള്ളത് ടേബിൾ ടെന്നീസും ബാഡ്മിൻ്റൻ അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ കളിക്കാറുള്ളത് പണ്ട് ഫുട്ബോളൊക്കെ കളിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഫുട്ബോളൊന്നും കളിക്കാറില്ല അങ്ങനെ